ഹലോ സെഞ്ച്വറി റെസ്റ്റോറെൻറ് അല്ലെ ഞാൻ കുറച്ചുമുമ്പ് ഇവിടെനിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിരുന്നു ഒരു പത്ത് ബിരിയാണി അമ്പത് ചപ്പാത്തി ഒരു മൂന്ന് ചിക്കൻ കറി എനിക്കിപ്പോൾ ആവശ്യമായത് ചപ്പാത്തി അമ്പതെണ്ണം വേണ്ട എനിക്ക് ഇരുപത്തഞ്ച് എണ്ണം മാത്രം മതി ബാക്കിയുള്ള സാധനങ്ങൾ അങ്ങനെ തന്നെ കിട്ടിയാൽ മതി